നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മരങ്ങളെ നശിപ്പിക്കുകയെന്നു പറയുന്നത് വളരെ മോശം ഒരു പ്രവൃത്തിയാണ് കാരണം മരങ്ങളാണ് നമുക്ക് ശ്വസിക്കുവാനുള്ള വായു തരുന്നത് നമുക്ക് ഭക്ഷിക്കാനുള്ള കായ് ഫലങ്ങൾ ഭക്ഷ്യവിളകൾ തരുന്നതും നമ്മുടെ മരങ്ങൾ തന്നെയാണ് മരങ്ങൾ നമുക്ക് നല്ലൊരു തണൽ നൽകുന്ന ഒരു വൃക്ഷമാണ് ഇവയെ വെട്ടിക്കളയുകയെന്നു പറയുന്നത് നമ്മൾ പ്രകൃതിയോടു ചെയ്യുന്ന വളരെ വലിയൊരു ക്രൂരതയാണ് ഒരു മരത്തെ വെട്ടുകയും മറ്റൊരു വെട്ടുകയാണെങ്കിൽ മറ്റൊരു മരത്തെ നമ്മൾ നട്ടുപിടിപ്പിക്കണം അതാണ് അതിൻ്റെ രീതി എന്നു കരുതി അതൊരു ഒരു ഇതായിട്ടെടുത്ത് നമ്മൾ അതിനെ മരത്തിനെ വെട്ടിയാലോ മറ്റൊരു വെട്ടാൻ മറ്റൊരു മരം വെച്ചാൽ മതിയല്ലോ എന്നു വിചാരിച്ച് മരത്തിനെ മുഴുവൻ നശിപ്പിച്ച് കളയുകയും ആ കാലയളവ് പിന്നീട് മരങ്ങളൊന്നും കാണാൻ സാധിക്കുന്നതല്ല ഇടുക്കി ജില്ലയിൽ നമ്മളെ വെച്ചു നോക്കുമ്പോൾ ഇപ്പോഴാണ് ഏകദേശം കുറച്ചെങ്കിലും മരം കൂടുതലുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ കാരണം ബാക്കിയുള്ള ജില്ലകളിലെല്ലാം തന്നെ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ച് പുതിയ പുതിയ കെട്ടിടങ്ങളും മറ്റു സമുച്ചയങ്ങളും പണിത് അവ ഈ മരങ്ങളെയെല്ലാം നശിപ്പിക്കുകയാണ് പുതിയ പുതിയ പുതിയ നിലപാടുകളെടുക്കുമ്പോൾ അവയെ പരിസ്ഥിതിയെ നശിപ്പിച്ചുകൊണ്ടല്ല നമുക്ക് ഈ നമ്മുടെ ഉന്നത സമൂഹത്തിന് ഉന്നതി നടത്തേണ്ടത് പരിസ്ഥിതികൾ പരിസ്ഥിതികൾക്കൊപ്പം നിന്നുവേണം നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് കാരണം മരങ്ങൾ നമ്മൾക്കെപ്പോഴും നമ്മുടെ ശുദ്ധവായു തരുവാനും ഇന്ന് നമ്മൾക്ക് നല്ലൊരു കുളിർ നൽകാനും തണൽ നൽകാനും വേണ്ടിയിട്ടുള്ളവയാണ് അവയെ വെട്ടി നശിപ്പിച്ചുകൊണ്ട് നമ്മൾക്കൊരു നേട്ടവും നേട്ടവും എടുക്കേണ്ട കാര്യം നമുക്കില്ല അതുപോലെതന്നെ പുതിയ മരങ്ങൾ വെക്കുന്നതിനെപ്പറ്റിയുള്ള അഭിപ്രായം പുതിയ മരങ്ങൾ വെച്ച് നട്ട് നട്ടുവെച്ചാൽ മാത്രമേ നമുക്ക് ഭാവിയിലേക്ക് അതൊരു തണൽ മരമായി മാറാൻ സാധിക്കാനും ഇന്നൊരു മരം വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ മരണത്തിന് മരണശേഷമോ അവ നമ്മുടെ നമ്മളുടെയൊരു പ്രതിപുരുഷനായി നമ്മുടെ പ്രകൃതിയിൽ നമുക്ക് കാണാൻ സാധിക്കും ഇത് നമ്മൾ ഞാൻ വെച്ച മരമാണല്ലോ എന്നു കരുതി ബാക്കിയുള്ളവർക്ക് പറയാൻ പറ്റുമല്ലോ അതുപോലെതന്നെ മരങ്ങളെ ചുമ്മാ വെട്ടി നശിപ്പിക്കുന്നതിന് നമ്മളൊരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല കാരണം ഈ ഈ മരങ്ങളാണ് നമ്മളെ ഇത്രയും കാലം ശുദ്ധവായു നൽകി നമ്മളെ ഇവിടെ നിർത്താൻ സാധിച്ചത് മരങ്ങളെ പൂർണ്ണമായും വെട്ടാതിരിക്കാൻ നമ്മൾക്ക് കഴിയില്ല കാരണം നിരവധി ഉപയോഗങ്ങളാണ് മരങ്ങൾ കൊണ്ടുള്ളത് അതുകൊണ്ടുതന്നെ ദോഷ ഉപയോഗങ്ങൾക്കായി ധാരാളം മരങ്ങൾ വെട്ടി നശിപ്പിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് നമുക്കുതന്നെ അത് തിരിച്ചടിയായി മാറുമെന്നാണ് നമുക്ക് നമുക്ക് നേരിട്ട് കണ്ടുതന്നെ അറിയാമല്ലോ കാരണം നമുക്ക് ഒരു എക്സാമ്പിൾ എന്നു പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞിടയ്ക്ക് വയനാട്ടിലൊരു ഉരുൾ പൊട്ടലുണ്ടായി കാരണം അവിടുത്തെ മരങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ച് ഒരു മലയിലുള്ള മരങ്ങളെല്ലാം ഒന്ന് വെട്ടി ഇറക്കി പിന്നീട് അതിനു വേണ്ടിയിട്ടുള്ള മരം നടാനുള്ള കുഴി എടുത്തിട്ടിരിക്കുകയായിരുന്നു പക്ഷേ വേറെ മരങ്ങളൊന്നും മണ്ണിനെ പിടിച്ചു നിർത്താൻ ഇല്ലാത്തതുകൊണ്ട് മരത്തിൽ ശക്തമായ മഴ പെയ്തു കഴിഞ്ഞപ്പോൾ ആ കുഴികളിലെല്ലാം വെള്ളം നിറയുകയും പെട്ടന്നൊരു പ്രകമ്പനത്തോടെ തന്നെ ആ മലയിടിഞ്ഞുകൂടി അവിടെ പ്രദേശത്ത് നടന്ന നിരവധി പേർക്ക് മരണം സംഭവിക്കയും ചെയ്തിരുന്നു ഇതുപോലെ തന്നെ അത് ഓരോരോ അപകടങ്ങളുള്ള മണ്ണിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് പ്രകൃതിയേയും മണ്ണിനേയും ഇവയൊക്കെ പിടിച്ചു നിർത്താൻ കഴിയുന്നവയാണ് ഈ മരങ്ങളും ചെടികളും ഇങ്ങനെയുള്ള മരങ്ങളെ നമ്മൾ വെട്ടി നശിപ്പിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്കവ കാണാൻ കഴിയേണ്ടി വരുമെന്നെനിക്ക് തോന്നുന്നില്ല കാരണം മലയോര പ്രദേശങ്ങളായതിൽ തന്നെ കൂടുതലായിട്ടും മരങ്ങൾ നട്ടു നട്ടു പിടിപ്പിക്കുമെന്ന് കാരണം ഉരുൾ പൊട്ടലുകൾ പോലത്തെ വലിയ വലിയ അപകടങ്ങൾ സാധിക്കാനുള്ള സാധ്യകൾ സാധ്യതകൾ ഈ മലയോര പ്രദേശങ്ങളിൽ കൂടുതലാണ് കൊണ്ട് തന്നെ മരങ്ങളെ വെട്ടി നശിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെ പുതിയ മരങ്ങൾ നട്ടു വെക്കുന്നുള്ളത് പുതിയ മരങ്ങൾ നട്ടു വെയ്ക്കുക അനിവാര്യമാണ് അതുകൊണ്ടുതന്നെ ഇവ എപ്പോഴും മരങ്ങളൊരു മരം വെട്ടിയാൽ മറ്റൊരു മരം വെക്കണമെന്നാണ് പ്രകൃതി നിയമം അപ്പം എപ്പോഴും പാലിച്ചുകൊണ്ട് വേണം ഈ പുതിയ സമൂഹത്തിൽ നാം വളരാനായിട്ട് നാം നാം നമ്മുടെ മക്കളെ ഒരു മരം വെട്ടിയാൽ മറ്റൊരു മരം അതുപോലെ മറ്റൊരു തൈ വെക്കണമെന്ന് പഠിപ്പിച്ചു വേണം വളർത്താൻ ഒരു മരമാണ് അവസാനം മനുഷ്യനെ ചിതയാകുക എന്നുള്ള കാര്യങ്ങൾ നാം പലയിടത്തും കേട്ടിട്ടുണ്ട് കണ്ടിട്ടും ഉണ്ട് അതുപോലെതന്നെ മരം മുറിക്കുന്ന എന്ന സമ്പ്രദായത്തോട് നാം ഒത്തിരി ചേർന്നു നിൽക്കാതെ അവയെ കൂടുതലായിട്ടും സംരക്ഷിക്കാനും ഭാവിയിലേക്ക് സൂക്ഷിച്ചു വെക്കാനുള്ള കരുതലുകളും ആ സംഭവങ്ങളൊക്കെ നമ്മൾ ഒടുക്കമായി ചെന്നപ്പോഴാണ്